മലയാള ഭാഷ സംസാരിക്കാനായിട്ട് നമ്മൾ പിന്നെ ഒത്തിരി വായനകൾ വായിക്കണം വായിച്ച് വളരണം അപ്പം നമുക്ക് മലയാളഭാഷകൾ ഒത്തിരി സംസാരിക്കാനായിട്ട് സാധിക്കും ഭാ വായനയിലൂടെ മാത്രമേ നമുക്ക് നല്ല സ്ഫുടതയോടുകൂടി മലയാളഭാഷ സംസാരിക്കാന് പറ്റുള്ളൂ അപ്പോള് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങളും ചില്ലക്ഷരങ്ങൾ ആണെങ്കിലും കൂട്ടക്ഷരങ്ങൾ ആണെങ്കിലും എല്ലാം നമ്മൾ ഹൃദയത്തില് കരസ്ഥമാക്കിയെങ്കില് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഭാഷകൾ സംസാരിക്കാന് മലയാളഭാഷകള് സംസാരിക്കാന് സാധിക്കുകയുള്ളൂ അപ്പം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കണം അക്ഷരങ്ങൾ നല്ല രീതിയില് പഠിച്ചുംകൊണ്ട് നല്ല രീതിയിൽ പിന്നെ സംസാരിക്കാനുള്ളൊരു കഴിവ് നമുക്ക് നേടിയെടുക്കണം പിന്നെ ഇതിൽ പല വേദികളിൽ സംസാരം അങ്ങും ഇങ്ങും മലയാളഭാഷ സംസാരിക്കാനായിട്ട് ചര്ച്ചകളിലൂടെ നമുക്ക് ഒത്തിരി ഒത്തിരി ഭാഗം ആവാന് കഴിയും ഈ മലയാളഭാഷ സംസാരിക്കാന് ചര്ച്ചകൾ പല രീതിയിലുള്ള ചര്ച്ചകൾ പല ഭാഷയിൽ പല ലാംഗ്വേജ് ചില സ്ഥലങ്ങളിലുള്ള ഭാഷയുടെ വൈവിധ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുവെച്ചാൽ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഭാഷകൾ മലയാളഭാഷ സംസാരിക്കുന്നത് അപ്പം അവരും ഒക്കെയായിട്ട് നമ്മൾ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനോട് ഒത്തിരി ഭാഷകൾ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പം ചര്ച്ചകളിലൂടെ ഒക്കെ തന്നെയാണെങ്കിലും നമുക്ക് മലയാളഭാഷ നല്ല രീതിയില് സംസാരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ പറ്റും പ്രൊ അവക് നമുക്ക് നല്ല രീതിയിൽ അതിൽ ചില ഗെയിമുകൾ ഒക്കെ കൊടുക്കുവാണെങ്കിൽ തന്നെയാണെങ്കിലും ചില വാക്കുകളിലൂടെ ഉള്ള ഗെയിമുകൾ നമ്മൾ ഓരോ വാക്ക് പറയുമ്പോഴത്തേക്കും അതിന് അതിൽ ഓരോ ഗെയിം കൊടുക്കുവാണെങ്കിൽ നമുക്ക് മലയാളഭാഷ ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് നമുക്ക് സാധിക്കും അതിന് അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്